മിക്കവരെയും പോലെ തന്നെ എനിക്കും ഭക്ഷണം ഉണ്ടാക്കുവാനും കഴിക്കുവാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാനും അതുകൊണ്ട് തന്നെ ഭക്ഷണം ഉണ് പക്ഷേ അത് ഇടയ്ക്കേ ഉള്ളൂ അത് വേറെ കാര്യം ഭക്ഷണം ഉണ്ടാക്കുന്നതിലൂടെ ഞാൻ കുറേ കാര്യങ്ങൾ അല്ലാണ്ട് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിനും ഉണ്ടാക്കുന്നതിന് എന്നെ എൻ്റെ അമ്മയാണ് സഹായിക്കാറ് അമ്മയുടെ വിധങ്ങളാണ് ഞാനും പിന്തുടരാൻ ശ്രമിച്ചിട്ടുള്ളത് പിന്നെ ചില അപൂർവം ചില ഭക്ഷണങ്ങൾക്ക് മാത്രം ഞാൻ എന്റേതായിട്ടുള്ള ചില കാര്യങ്ങൾകൂടെ കൂട്ടിച്ചേർത്താണ് ഉണ്ടാക്കുക അപ്പോൾ വിധത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ആ ആളിൽ നിന്നൊരു സംതൃപ്തി വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ ഒട്ടേറെ സന്തോഷം എനിക്ക് തോന്നാറുണ്ട് കാരണം കാരണം നമ്മളൊരു വലിയ കാര്യമല്ലേ ചെയ്തത് ഒരാൾക്ക് ഒരു ഭക്ഷണം നൽകുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടേറെ സന്തോഷം തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ പാചക രീതി ആദ്യം ഞാൻ ഒരാളിൽ പ്രകടിപ്പിക്കുക നല്ല രീതിയിൽ അത് കൊടുത്ത് ആയിരിക്കും അതോടൊപ്പം തന്നെ ആ ആൾക്ക് അത് അറിയാൻ അതിനെക്കുറിച്ച് അറിയാൻ താൽപര്യമുണ്ടെങ്കിൽ ആ ആൾ എന്നോട് ചോദിക്കുകയും ഞാനത് നല്ല രീതിയിൽ തന്നെ എങ്ങനെയാണത് തയ്യാർ ചെയ്തത് എന്ന് ആദ്യം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുകയും ഇല്ല ഒന്ന് കണ്ടു മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പിന്നെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുകയും വരെ വേണമെങ്കിലും ചെയ്യും കാരണം എനിക്ക് താൽപര്യമുള്ള ഒരു കാര്യമാണത് അതോടൊപ്പം തന്നെ ഒരാളെ പാചകം പഠിപ്പിക്കുവാൻ അധികം എന്താണ് പറയുക അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്നാൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് എന്ന് അറിയാം കാരണം നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ അവർ ചെയ്യണം എന്നില്ല അതുപോലെ തന്നെ അവർ ചെയ്യുന്നത് നമ്മൾക്ക് ഇഷ്ടപെടണമെന്നുമില്ല ഞാൻ ദേഷ്യമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ദേഷ്യപ്പെടുകയും വരെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഞാൻ എൻ്റെ പരമാവധി അവരെ അത് പഠിപ്പിച്ചു മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കും കാരണം നമ്മൾ മാത്രമല്ലല്ലോ നമുക്ക് ഉള്ള ഒരറിവ് ഒരാൾക്ക് കൈമാറുക എന്നത് ഒരു വലിയ കാര്യമല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകമായി ഉണ്ടാക്കാറ് ചിക്കൻ കറി ചപ്പാത്തിയൊക്കെയാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഭക്ഷണം അതൊക്കെയാണ് പിന്നെ ബിരിയാണിയൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഞാനും കൈമാറാറ്